ഞാൻ ഒന്നാം ക്ലാസ് തൊട്ടാണ് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചത് നമ്മടെ മാതൃഭാഷയാണ് മലയാളം അതുകൊണ്ടുതന്നെ വളരെ പ്രാ പ്രയാസമൊന്നുമില്ല അത് പഠിക്കാൻ വളരെ എളുപ്പമാണ് പഠിക്കാനൊക്കെ അപ്പോൾ എൻ്റെ അമ്മയാണ് എനിക്ക് മലയാളം ആദ്യായിട്ട് എഴുതിയും വായിക്കാനും പഠിപ്പിച്ച് തരുന്നത് പിന്നേ നല്ല ഭാഷയാണ് എല്ലായിടത്തും കേൾക്കാത്തൊരു ഭാഷയാണ് അപ്പോൾ നല്ലൊരു ഭാഷയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാഷയാണ് മലയാളം പിന്നെ മലയാളത്തില് കവിതകളും പിന്നെ കഥകളും ഒക്കെ വായിക്കാനൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ട്ടമാണ് മലയാളം എന്ന് പറഞ് മലയാളിയാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്തിരുന്നാലും എൽ എല്ലാടത് പോയാലും ഞാനൊരു മലയാളിയാണ് എന്ന് പറയാനെനിക്ക് നല്ലൊരഭിമാനമുണ്ട്